കോഴിയെ കുറിച്ച് പറയുകയാണെങ്കില് ഞാന് സാധാരണ ഒരു വീട്ടമ്മയാണ് ഞാനിവിടെ രണ്ടുമൂന്ന് കോഴിയെ വളർത്തുന്നൊക്കെയുണ്ട് പിന്നെ കോഴി സംബന്ധമായ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ പിന്നെ കോഴി ഫാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണം അതൊന്നും ഇവിടെ ചുറ്റുവട്ടത്തൊന്നുമില്ല പിന്നെ ഇപ്പം അവരെ കർഷകരെയൊക്കെ പോയി കണ്ട് കോഴി ഫാമിലൊക്കെ അങ്ങനെയൊക്കെ പോയി അന്വേഷിക്കുക വേണം അപ്പോൾ അത് അപ്പം അതിനെക്കുറിച്ചൊന്നും എനിക്ക് അറിയില്ല പിന്നെ യൂട്യൂബ് യൂട്യൂബ് ചാനലുകള് പുസ്തകങ്ങള് അതിൻ്റെ അതിനെ കുറിച്ചൊന്നും എനിക്കതിന് ആവശ്യം വന്നിട്ടില്ല അതുകൊണ്ട് നമുക്കതിനെ കുറിച്ചൊന്നും പ്രത്യേകിച്ച് അറിയില്ല